ഞാൻ പത്രം വായിക്കുമ്പോൾ വാർത്തകൾ മാത്രമല്ല അതിൻ്റെ സൈഡിലുള്ള ചെറിയ ചെറിയ കാർട്ടൂണുകളൊക്കെ ഉണ്ടാകും അതൊക്കെ നോക്കാറുണ്ട് അതുപോലെ താഴെയുള്ള പരസ്യങ്ങളൊക്കെ നോക്കും പിന്നെയീ കാർട്ടൂണുകളൊക്കെ ചിലസമയത്തൊക്കെ ഈ ചെറിയ ചെറിയ കാർട്ടൂണുകളിൽ വലിയ വലിയ അർത്ഥങ്ങളുള്ളതായിട്ട് ചില സമയത്ത് തോന്നാറുണ്ട് അതുപോലെ പിന്നെ പരസ്യങ്ങൾ ഇപ്പോൾ ഓരോ കടകളുടെ ഒക്കെയായിട്ടുള്ള പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ ഒരു ഷീറ്റും ഫുള്ളായിട്ടും പരസ്യങ്ങളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ചില സമയത്ത് ഈ മൈ ജി പോലെയുള്ള കടകളുടെയൊക്കെ വലിയ വലിയ ഓഫറുകൾ കാണിക്കുമ്പോൾ അതൊക്കെ നോക്കാറുണ്ട് അതുപോലെ പിന്നെ ചെറിയ ചെറിയ ന്യൂസ് പോയിൻ്റുകളൊക്കെ സൈഡിലിങ്ങനെ ഓരോ ഇതുപോലെ എഴുതിയിട്ടുണ്ടാകും അതൊക്കെ നോക്കും പിന്നെ അതിൽ വാക്കൻസികൾ ജോബ് വാക്കൻസികളുടെയും പിന്നെ അങ്ങത്തെ പരസ്യങ്ങളുണ്ടാകും അതൊക്കെ ഞാൻ നോക്കാറുണ്ട് ഇപ്പോൾ ഓരോ കടകളുടെ ഒക്കെ പരസ്യങ്ങൾ അതായത് ഇപ്പോൾ ഓരോ ജോലിക്കാർക്ക് ജോലി ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്തു ജോലിക്ക് പോകണമെന്നുണ്ട് ഓരോ ട്യൂഷൻ സെൻ്ററുകളുടെയൊക്കെ ഉള്ള പരസ്യങ്ങളൊക്കെ ഉണ്ടാവകും മാട്രിമോണികളുടെയൊക്കെ അതൊക്കെ ഞാൻ നോക്കും പിന്നെ ഞാൻ സ്ഥിരമായിട്ട് പത്രം വായിക്കാറുണ്ട് ഇപ്പോൾ വായിക്കാനുള്ള പതിവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ടിങ്ങനെ പത്രം വായിക്കും അപ്പോൾ വീട്ടിലത്തെ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ കടകളിൽനിന്നോ അല്ലെങ്കിൽ എവിടെനിന്നെങ്കിലുമൊക്കെ വായിക്കാറുണ്ട്